ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡ്രില്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരൂ മുവ്വായിരം രൂപയായി നല്ലൊരു ഡ്രില്ലായിരുന്നു ബോസ്കോൻ്റെ കമ്പനിയുടെ ഡ്രില്ലായിരുന്നു ഞാൻ മേടിച്ചത് നല്ലൊരു കപ്പാസിറ്റിയിള്ളോര് ബിൽഡിങ് കോളിറ്റി ഉള്ളൊരു ഡ്രില്ലാണത് ഇതിൻ്റെ ഒപ്പം എനിക്കൊരൂ നാല് ബിറ്റും അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോർ എംഎമ്മിൻ്റെ സിക്സ് എംഎമ്മ് എയിറ്റ് എംഎമ്മ് ട്വൽവ് എംഎമ്മ് അങ്ങനെ നാല് ബിറ്റും ഇതിൻ്റെ ഒപ്പം ഫ്രീയായി കിട്ടി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇതിന് നമുക്കിപ്പോൾ അത്യാവശ്യം ഇതില് ഡ്രില്ലടിക്കാനും സ്ക്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അത്പോലെ നമുക്ക് അത്യാവശ്യം ബ്രെയ്ക്കറായും ഇത് യുസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മള് വല്ല വയറിങും ചെയ്യാനൊക്കെ സമയത്ത് നമുക്കിങ്ങനെ ചുമര് കുത്തിപ്പൊളിക്കുമ്പോൾ ഇങ്ങനെ ഇടിച്ച് ബ്രെയിക്ക് ചെയ്യാനുള്ള ഓരോപ്ഷൻ ഇതിനകത്തുണ്ട് അത് ബ്രെയിക്ക് പൊയിൻറ്റില് നമുക്ക് ബ്രെയിക്ക് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാൻ പറ്റും അതുപോലെ ഇതില് റിവേഴ്സ് മോഡുണ്ട് നമ്മളിപ്പോൾ ഡ്രില്ലടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കേറി അപ്പോൾ എടുക്കാൻ കിട്ടണില്ലാന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഡിലിട്ടിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും റിവേഴ്സും എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്ണ്ട് നല്ലൊരു ബിൽഡ് കോളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ റെസിസ്റ്റൻസാണ് പൊടിപ്പോയാലൊന്നും പെട്ടന്ന് കേട് വരുന്നില്ലാ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു പ്രൈസില് മുവ്വായിരം രൂപയ്ക്ക് അത് നല്ല ലാഭമാണ് എനിക്ക് നന്നായിട്ട്ണ്ടായിരുന്നു ഈ ഒരു ഡ്രില്ല്